ഞങ്ങളുടെ കോളേജിൽ ഇൻസൈറ്റ് എന്ന പരിപാടി നടന്നിരുന്നു ഈ പരുപാടിയിൽ ഞങ്ങൾ ഓരോരോ ക്ലാസുകളിൽ അലൗട്ട് ആയ ടീമുകളായി ഞങ്ങൾ ഓരോ പരിപാടി നടത്തുന്നു വരുന്ന ആൾക്കാരെ ഇതിൽ ആകർഷിക്കുന്നതാണ് മെയിൻ അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടത്തിൽ നടത്തിയത് ഒരു മെയ്സാണ് മെയ്സ് മെയ്സിൽ ഒരു വഴിയിലൂടെ ഉള്ളിൽ പോയി അപ്പുറത്ത വഴിയിലൂടെ വഴി കണ്ട് പിടിച്ച് എക്സിറ്റിലൂടെ പുറത്ത് വരുന്നതാണ് ലക്ഷ്യം ആദ്യം ഞങ്ങൾ ഈ പ്ലാൻ പ്രൊപ്പോസ് ചെയ്തപ്പോൾ ടീച്ചറുകൾ സമ്മതിച്ചില്ല പിന്നെ പ്രിൻസിപ്പാലിനോട് ഈ കാര്യം ഉന്നയിച്ചപ്പോൾ പ്രിൻസിപ്പാളാണ് സമ്മതിച്ചത് എന്നിട്ട് ഉപയോഗിക്കാതെ അതോ അഥവാ ആരും എടുക്കാത്ത ഒരു റൂം ഞങ്ങൾക്ക് കിട്ടി നാന്നൂറ്റി നാലാമത്തെ റൂം ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളുടെ കോളേജിൽ ഈ റൂമിൽ ഞങ്ങൾ പ്ലാനിംഗ് തുടങ്ങി പ്ലാനിംഗ് ഞങ്ങൾ മെയ്സിൻ്റെ ലേഔട്ട് ആദ്യം വരച്ചു ഈ ലേയൗട്ടിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാകേണ്ടതായ സാധനങ്ങളും നിർമിത സാധനങ്ങളും ആവിശ്യകരമായ വേ വേണ്ടപ്പെട്ട സമയവും എല്ലാം കണക്ക് കൂട്ടി കണക്ക് കൂട്ടി ഞങ്ങളിൽ ഉള്ള എല്ലാവരും വേണ്ടപ്പെട്ട സാധനങ്ങൾക്ക് എണ്ണം എണ്ണമെടുത്ത് വേണ്ടത് പോലെ മുറിക്കാൻ തുടങ്ങി ഇതിൻ്റെ നിർമാണത്തിന് ഉപയോഗിച്ചത് കാർഡ്ബോർഡും കയറും ടേപ്പും കത്രികയും അത് ഇതുപോലെ പല ടാർപ്പായും പല സാധങ്ങളുമാണ്

ഞങ്ങൾ മൂന്ന് നാല് ദിവസത്തിൽ ഉച്ചക്ക് ശേഷം വൈകുന്നേരം വരെ ഞങ്ങൾ എല്ലാവരും ഇത് പണി പണി ചെയ്യാൻ തുടങ്ങി കയറുകൾ ഉപയോഗിച്ച് നാല് കോർണറിലും കെട്ടി ഒരു ഗ്രിഡ് ഉണ്ടാകുന്നതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം ഈ ഗ്രി ഗ്രിഡുകളിലൂടെ കാർഡ്ബോർഡ് വെച്ച് മതിലുകൾ ഉണ്ടാക്കി ഒരു മെയ്സിൻ്റെ രൂപമായി ഞങ്ങൾ കെട്ടി തുടങ്ങി മെയ്സിൻ്റെ അടിവശം ടേപ്പും കൊണ്ട് നിലമായി ഘടിപ്പിച്ചു ഇങ്ങനെ ഘടിപ്പിച്ചതിനാൽ മെയ്സിന് ഒരു ഉറപ്പ് വന്നു ഇങ്ങനെ ഘടിപ്പിച്ച് നടുവിൽ നിന്ന് പുറത്തേക്ക് ലേഔട്ട് ഞങ്ങൾ നിലത്ത് വരച്ച് അതിനാൽ വെച്ച് തുടങ്ങി ഇങ്ങനെ വെച്ച് ഞങ്ങളുടെ ഇൻസൈറ്റ് എന്ന പരിപാടിയുടെ ദിവസം വന്ന് രാവിലെ ആകുമ്പോളെക്കും എല്ലാ പരിപാടിയും ശരിയായി അതിൽ അശ്വതി എന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ പോസ്റ്റർ ഉണ്ടാക്കി പുറത്ത് വെച്ചത് ടീം ലീഡർ എന്ന നിലക്ക് ഞാൻ എല്ലാവരോടും സംസാരിച്ച് അഭിനന്ദിച്ചു